ഞാൻ വീട്ടിന്റ അവിടുന്ന് എന്ന് പറയുമ്പോൾ കുളത്തിലും പുഴയിലുമൊക്കെയാണ് നീന്താൻ പോകാറുള്ളത് കൂടുതൽ സമയവും ഞാൻ നീന്താൻ പോകുന്നതെന്ന് പറയണത് പുഴയിലായിരിക്കും അത്യാവശ്യം കുളത്തിലും പോകാറുണ്ട് പുഴയിൽ പോകാന്ന് പറഞ്ഞാൽ അടുത്ത് പുഴയാണ് അതുകൊണ്ടാണ് അങ്ങനെ പുഴയ്ക്ക് പോകാറ് പിന്നെ കുളത്തിലാണ് പോകാറുള്ളത് കുളത്തിലും പോകാറുണ്ട് കുളത്തിൽ പോയി ഒരു രണ്ട് മണിക്കൂറൊക്കെ നീന്താറുണ്ട് രണ്ട് മണിക്കൂറെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടല്ല നീന്തും അതുകഴിഞ്ഞ് കുറച്ചുനേരം റസ്റ്റ് എടുക്കും പിന്നെയും നീന്തും അങ്ങനെ കുളത്തിൽ പോയി വരുമ്പോൾ എന്തായാലും ഒന്ന് രണ്ട് മണിക്കൂർ പിടിക്കും വീടിന്റടുത്ത് തന്നെയാണ് കുളമുള്ളത് അതേപോലെയാണ് പുഴയും പുഴയാണെങ്കിലും നീന്താൻ ഇഷ്ടമാണ് കൂടുതലും നീന്താൻ ഇഷ്ടംന്ന് പറയണത് കുളത്തിലാണ് കുളത്തിലെ വെള്ളംന്ന് പറയുമ്പോൾ അത് അവിടെ സ്റ്റേബിൾ ആയിരിക്കും അതെവിടേക്കും അനങ്ങുന്നുണ്ടാവില്ല ഒഴുക്കുണ്ടാവില്ല അതാണ് കുളത്തിലെ വെള്ളത്തിന്റെ വ്യത്യാസംന്ന് പറയണത് പുഴയിലെ വെളളംന്ന് പറഞ്ഞാൽ ഒഴുക്കുണ്ടാവും അതേപോലെ അടി ഒഴുക്കും നമ്മള് നീന്തുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒഴുകി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് വെള്ളത്തിൽപ്പെടാൻ മുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഒഴുക്കുള്ള വെള്ളായിരിക്കും പുഴയിലെന്നു പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് പുഴയില് നീന്താന്ന് പറയണത് കുറച്ച് പാടാണ് പുഴയിലെ ഒഴുക്ക് നീന്തി അപ്പറം പോകുകാന്നു പറയുന്നത് പക്ഷേ കുളത്തില് പറയുമ്പോൾ സ്റ്റേബിളായത് കൊണ്ട് തന്നെ നമുക്ക് സിംമ്പിളായിട്ട് അങ്ങടും ഇങ്ങടും നീന്തി വരാനും നീന്താനൊക്കെ സൗകര്യം ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടംന്ന് പറയുന്നത് കുളത്തില് നീന്താൻ തന്നെയാണ് പുഴയില് നീന്താറൊക്കെയിണ്ട് അതേപോലെ വെള്ള തടാകങ്ങള് ചെറിയ ചെറിയ തടാകങ്ങളൊക്കെ ഉണ്ടെങ്കില് അവിടെയും നീന്താറൊക്കെയുണ്ട് നീന്താനും നല്ല സുഖമാണ് നമുക്ക് പേടിക്കാനില്ല തടാകങ്ങള് കുളങ്ങള് ഇവിടെയൊക്കെ പോയി നീന്തും ബീച്ചിലൊന്നും പോയി നീന്താൻ ഞാൻ അത്രക്ക് പേടിയാണൊന്നാമത് ബീച്ചിലൊക്കെ പോകുമ്പോൾ തിരമാലകള് ബീച്ച് അത്ര സേഫല്ലാന്നുള്ളതുകൊണ്ട് തന്നെ ബീച്ചിൽ പോകാൻ നീന്താറുണ്ട് പോയിട്ടുണ്ട് നീന്തീട്ടൊക്കെയിണ്ട് പക്ഷേ ഒരു പേടിയുണ്ട് കൂടുതലും എനിക്കിഷ്ടം കുളത്തിൽ നീന്താനാണ്